ഞങ്ങൾ കൂടുതലാൾക്കാർക്കായിട്ട് ഭക്ഷണം പാകം ചെയ്തത് എന്നു വെച്ചാൽ ഒരു കെയ്ക്ക് കെയ്ക്ക് ഞങ്ങളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഒരു പത്തിരുപത് ആൾക്കാരുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അന്ന് ഉണ്ടാക്കിയപ്പോൾ എത്താത്തൊരവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ രസമായിരുന്നു കാണാൻ പിന്നെ ഒപ്പരം ഇരുന്നു കഴിക്കാനും അതൊക്കെ വളരെ മനോഹരം തന്നെയായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ടൈമെടുത്തു കുറച്ച് നല്ല സമയെടുത്തു പക്ഷെ നല്ല രീതിയിലുണ്ടാക്കി നല്ല രുചിയുണ്ടായിരുന്നു ചോക്ലേറ്റ് കെയ്ക്കായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ കൂടുതൽ വേഗത്തിൽ എടുക്കാനുള്ള മാർഗ്ഗം എന്നു വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒപ്പരമാണ് ഉണ്ടാക്കിയത് ഒരാൾ മാത്രമായിട്ടല്ല ഉണ്ടാക്കിയത് എല്ലാവരും ഒപ്പരം എന്താ കൂടി ഒരാൾ തേങ്ങ ചിരകുകയാണെങ്കിൽ ഒരാളപ്പുറത്ത് ഐസ് പിന്നെ മിക്സിയിലിട്ട് അടിക്കുകയായിരുന്നു ചെയ്തത് മറ്റൊരാൾ പിന്നെ ക്രീം എന്താ ഇങ്ങനെ ഇളക്കുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ എല്ലാവരും വേറെ വേറെ വ്യത്യസ്ത രീതിയിലുള്ള പണികൾ ചെയ്തപ്പം വേഗത്തിൽ തന്നെ ഇതാവാൻ പറ്റി എല്ലാവരേയും പിന്നെയെന്താ പറയുക ഒരു കൂട്ടായ്മ അതിലുണ്ടായിരുന്നു ആ കൂട്ടായ്മ കാരണമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് പിന്നെ വളരെ എന്താ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുക അപ്പോൾ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും